കായികം എനിക്ക് പിരിമുറക്കം വരുമ്പോൾ ഞാനൊരുപാട് കായിക വിനോദത്തിലേർപ്പെടും കാരണം ഞാൻ ഇപ്പം ഓരോ ജോലി കഴിഞ്ഞാലും പഠിത്തം കഴിഞ്ഞാലും എനിക്കൊരുപാട് ഒരുപാട് പിരിമുറുക്കങ്ങളുണ്ടാവും അത് അത് മൂലം എനിക്ക് ഒന്നും ചെയ്യാനോ ഒന്നും കഴിയാതെ കഴിയില്ല എനിക്കൊ ഒ ഒരു കാര്യത്തിനും എനിക്കൊരു ഊർജം ഇല്ലാതെയാവും അപ്പോൾ ഞാനത് മറ്റേ പിരിമുറുക്കണ് മാറ്റാൻ വേണ്ടീട്ട് ഞാൻ നല്ല മൊബൈൽ ഗെയിംസ്സ കളിക്കാറുണ്ട് അതിങ്ങനെ കളിച്ച് കളിച്ച് ഇപ്പം ഞാനേറ്റോം കൂടുതൽ കളിക്കുന്നത് ഫ്രീ ഫയറാണ് അത് കളിക്കുമ്പോൾ എനിക്ക് നല്ലൊരാശ്വാസം തരുന്നു അപ്പം നാ നമുക്കവിടത്തെ സുഹൃത്തുമായൊരുപാട് പരിചയപ്പെടാനും സംസാരിക്കാനും കഴിയുമ്പോൾ എനിക്കെൻ്റെയാ പിരിമുറുക്കങ്ങളിൽ നിന്ന് എനിക്ക് നല്ലൊരു മോചനം കിട്ടും

അപ്പോളെനിക്ക് നല്ലൊരു സമാധാനോം ആശ്വാസോം തരുന്നുണ്ട് പിന്നെ എൻ്റെ വീടിനടുത്ത് കുറെ കൂട്ടുകാരുണ്ട് അവരുമായിട്ട് ഞാൻ ഫുട്ബോള് കളിക്കുമ്പോൾ ദേഹം ശരീരം മൊത്തോം നല്ലൊരു ആശ്വാസോം സമാധാനോം കിട്ടും മനസിനും അവർടെതെല്ലാം തുറന്ന് സംസാരിയ്ക്കേം എനിക്കൊരാശ്വാസം നൽകുകേം ചെയ്യും പിന്നെ അതിൽക്കൂടുതൽ ഞാൻ ഒരുപാട് എൻ്റെ കൂട്ടുകാരനായ അശ്വിൻ ഒരുപാട് ഞാൻ എനിക്കിങ്ങനിതേപോലെ പിരിമുറുക്കം വരുമ്പോഴോ അവൻ തന്ന ഒരു മാർഗ്ഗവാണ് അവനെ വിളിച്ചിങ്ങനെ തുറന്ന് സംസാരിക്കുക അപ്പോഴെനിക്ക് ഒരുപാട് നല്ലൊരാശ്വാസവും ലഭിക്കും